രണ്ട് രണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ട് നാല് രണ്ടായിരത്തി രണ്ട് രണ്ട് ആറ് രണ്ടായിരത്തി രണ്ട് രണ്ട് എട്ട് രണ്ടായിരത്തി രണ്ട് രണ്ട് പത്ത് രണ്ടായിരത്തി രണ്ട്